വയറിളക്കത്തിനങ്ങനെ നാട്ട് വൈദ്യമൊന്നും എനിക്കറിയില്ല സാധാരണ ഞാൻ കണ്ടിരിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടൻചായ തിളപ്പിച്ച് കൊടുക്കാമെന്ന് പറയുന്നൊരു കാര്യം കേൾക്കാറുണ്ട് അതായത് കട്ടൻ ചായക്കകത്ത് നാരങ്ങ പിഴിഞ്ഞ് അത് ശരിക്കും പറയുന്ന പറയുന്നതാണ് ലെമൺ ടീ ലെമൺ ടീ കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കഞ്ഞി വെള്ളം കൊടുക്കുക നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഓ ആർ എസ് ലായനി കൊടുക്കുന്നതല്ല ചെയ്യുന്നത് അത് അലോപ്പതിയാണ് അല്ലാതെ നാട്ടുവൈദ്യവായിട്ടൊന്നും എനിക്കറിയില്ല ഏതാണ്ട് വേരുകളൊക്കെ അരച്ച് കൊടുക്കുന്ന ഒരു പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കൃത്യം എന്നാന്ന് ചെറുപ്പത്തിലെങ്ങാണ്ടൊക്കെ കണ്ടതാണ് എന്ന് വെച്ചാൽ വലിയ ധാരണയില്ല സാധാരണ ഗതിയിൽ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യുന്നത് കട്ടൻ ചായ തിളപ്പിച്ചതിൽ നാരങ്ങ ഒഴിച്ച് കൊടുക്കാണ് ചെയ്യാറ് അത് തന്നെയാണ് ഏറ്റോം ഉത്തമമെന്നാണ് വീട്ടിൽ അമ്മമാരൊക്കെ പറയുന്നത് പിന്നെ വയറിളക്കം സംഭവിച്ച ആൾകൾക്ക് ഛർദ്ദി സംഭവിച്ച ആൾക്കാർക്ക് കഞ്ഞിയും ഉപ്പൊഴിച്ച കഞ്ഞി അതിനകത്ത് മുളക് പൊട്ടിച്ചതുവാണ് സാധാരണ കഴിക്കാൻ കൊടുക്കാറ് അതിനപ്പുറത്തേക്കൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ എനിക്കില്ല